പീ എം കെ വി വൈ പ്രോഗ്രാം വളരെ ആശയജനകവും എല്ലാവർക്കും ഉപയോഗപ്രദമായ ഒരു പ്രോഗ്രാമാണ് ഇതു വളരെ പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്കു വളരെ ഉപയോഗമുള്ള ഒരു പദ്ധതിയാണ് അപ്പോൾ എനിക്ക് എൻ്റെ തത്ക്കാലം തേ കറണ്ട് സ്റ്റാറ്റസൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് എൻ്റെ ഐ ഡിയെന്നു പറയുന്നത് ഒന്ന് ഒന്ന് പൂജ്യം നാല് ഒന്നും ബാങ്ക് എക്കൗണ്ടിൻ്റെ അവസാനത്തെ നാലക്കം എന്നു പറയുന്നത് അറുപത് മുപ്പത്തേഴും ആണ് ഒന്ന് ഇതിൻ്റെ ഒരു കറണ്ട് നിലയെക്കുറിച്ച് ഒരു അപ്ഡേറ്റ് തന്നിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു